ഞാനെൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ എൻ്റെ താത്പര്യവും ഒരുമിച്ച് തന്നെയാണ് കൊണ്ട് പോയി വരുന്നത് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഷനും എൻ്റെ ഒരു മാ മനസ്സിനൊരു ഒരു റിലാക്സേഷനും വേണ്ടിയിട്ട് ഞാൻ നെയ്ത്ത് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പഠന കാലത്തിൽ തന്നെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് ഭയങ്കര ഒരു താത്പര്യം ഉണ്ടായിരുന്നു അന്ന് മുതലേ ഞാൻ പഠിക്കാനൊന്നും പോയിരുന്നില്ല ഫാഷൻ ഡിസൈനിങ്ങ് പഠിക്കാനോ തുന്നൽ പഠിക്കാനോ ഒന്നും പോയിരുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഫോണിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഫ് ഫ് കിഡ്സിനൊക്കെ എങ്ങനെയാണ് ഓരോ ഫ്രോക്കുകളും ഒക്കെ തൈക്കുന്നത് എന്ന് നോക്കിപഠിച്ചു ഞാനതുപോലെ ചെയ്യുമായിരുന്നു അതുപോലെ മുത്തുകളൊക്കെ വാങ്ങിയിട്ട് ആ രീതിയിൽ മുത്തൊക്കെ കോർത്ത് നല്ല ഡിസൈൻ ചെയ്യുമായിരുന്നു ഡ്രെസ്സൊക്കെ അപ്പോൾ എൻ്റെ ഇപ്പോൾ വീട്ടിലുള്ള ഓരോ പണികളും എൻ്റെ കുട്ടികളെ നോക്കലും എല്ലാം കൂടി ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നെയ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ചെയ്യാം ഇപ്പോൾ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ നെയ്ത്ത് ചെയ്യാനായിട്ട് ഇരിക്കാറുള്ളൂ പിന്നെ എന്തെങ്കിലും വിദ്യകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ മാ മാനസികമായിട്ട് നമ്മൾ ഒരു ഒരു ഇപ്പം നെയ്ത്തിനെ സ്നേഹിക്കുകയും അത് പോലെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആണെങ്കിൽ നമുക്ക് ഒന്നുമൊരു വിഷമകരമായി എടുക്കേണ്ടതില്ല നമുക്കെല്ലാം നമ്മുടെ രീതിയിൽ ആയിട്ട് ഓരോ ഓ സമയം കണ്ടെത്താനുണ്ട് ഇപ്പോൾ നമ്മുടെ നമ്മളുടെ പണി എ ആ ഒരു സമയത്ത് തീർത്തിട്ട് നെയ്ത്തിന് വേറെ ഒരു സമയം ഞാൻ കണ്ടെത്താറുണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്